ഞാനൊരു വയനാടിൽ നിൽക്കൊന്നൊരു വ്യക്തിയായത് കൊണ്ടുതന്നെ എനിക്ക് എൻ്റെ നാടിനെക്കുറിച്ചു ഒരു ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഞാനിത് ചുരുക്കത്തിൽ പറഞ്ഞു തരാം ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഒരുപാടു ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് അതുപോലെത്തന്നെ ഞങ്ങളുടെ നാട്ടിലെ സുലൽത്താൻ ബത്തേരി എന്ന സ്ഥലം വളരെ ക്ലീനിങ്ങോടുകൂടിയുള്ള അവിടൊരു കടലാസ് പോലും റോഡുകളിൽ കാണാൻ പറ്റില്ല അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങളുടെ നാടുകളിലെ വൃത്തി ഞങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തന്നെ ഞങ്ങള നാടിനെ കണ്ട് ബാക്കിയുള്ള നാടുകളും ബാക്കിയുള്ള സ്ഥലങ്ങളും ഇങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരുപാടു ഗുണങ്ങളുണ്ടാകും അതാണ് പറയാനുള്ളത്